ആ ആ ഇന്നലെ ഞാന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗൈഡ് അല്ലേ

ആ അത് തന്നെ അത് തന്നെ ആ അതെ അ അപ്പം ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട് അപ്പം നിങ്ങൾ അതിന് ഞങ്ങളെ സഹായിക്കുമല്ലോ അല്ലേ

ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് വാഹനം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരണോ അതോ നിങ്ങൾ അത് അറേഞ്ച് ചെയ്തു തരുമോ

ഞങ്ങൾക്ക് കേരളത്തിൽ തനതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കാണണമെന്നാഗ്രഹമുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ചില പള്ളികളിലൊക്കെ പോകണമെന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളില് പോകണമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പാക്കേജ് വല്ലതും ഉണ്ടോ അതോ നമ്മൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ കൊണ്ടു പോകുമോ പറ്റും അപ്പം ആ ഓക്കെ ആ അങ്ങനെ ആ ഹൗസ്ബോട്ട് വേണം ഹൗസ്ബോട്ട് വേണം ഹൗസ്ബോട്ടിൽ നമുക്ക് ഒന്ന് സ്പെൻ്റ് ചെയ്യാനുള്ള സൗകര്യം വേണം ആ

ആ മതിമതിമതി അത് മതി പിന്നെ അ ഞങ്ങൾക്ക് നോണ് വെജ്ജാണ് വേണ്ടത് ആ ആ ആ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ ഞാൻ എന്റെ മോൻ വൈഫ് പിള്ളേർ നാലു പേർ ഞാനും എന്റെ മോൻ വൈഫ് പിന്നെ രണ്ട് പിള്ളേർ അഞ്ച് പേർ ഞങ്ങള്ക്കിവിടെ ഒരു രണ്ടാഴ്ച്ചത്തെ ഉദ്ദേശിച്ചത് ഞങ്ങൾ വരുന്നത് വന്നത് ആ വേണം താമസസൗകര്യങ്ങളും ആ താമസസൗകര്യങ്ങളും അറേഞ്ച് ആ ആ അതെല്ലാം അറേഞ്ച് ചെയ്യണം ആ ആ ഓക്കെ ആ ആ ഓക്കെ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ആ

അ ആ പറഞ്ഞാര് അ ഒന്ന് ഒന്ന് മണര്കാട് പള്ളി ഒന്ന് പുതുപ്പള്ളി പള്ളി ഒന്ന് പരുമലപ്പള്ളി ഈ മൂന്ന് പള്ളികളിൽ പോകണം ആ ഓക്കെ

ഓക്കെ ആ ഞാൻ ഇന്ന് ഞങ്ങൾ നെടുമ്പാശ്ശേരിവന്നു വരും ഞങ്ങൾ ഒരു അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് നെടുമ്പാശ്ശേരി നമുക്ക് കൂട്ടിമുട്ടാം ഓക്കെ ഒക്കെ ഓക്കെ ഓക്കെ ബൈ ഓക്കെ ബൈ